ഗ്രാമീണ മേഖലയില് വ്യാപ്തമായ തൊഴിലാളികളെ കണ്ടെത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതൊരു വെല്ലുവിളി തന്നെയാണ് കാരണം എന്തെന്ന് വെച്ചാല് ഇപ്പൊ കാർഷിക മേഖലയില് ജോലി ചെയ്യാൻ ആള് ആളുകളില്ല ഓരോ ഈ പണികളിലൊക്കെ പോവുന്നോണ്ട് അങ്ങനെ കൃഷി മേഖലയിലേക്ക് ചെയ്യുന്ന ആളുകളില്ല പിന്നെ അന്നാലും അവരെ കണ്ടെത്തുന്ന കണ്ടുപിടിച്ച് കഴിഞ്ഞാല് അവർക്ക് കൂലിതന്നെ ചില കൃഷി കാർഷിക മേഖലകളില് ചിലപ്പം അഞ്ഞൂറ് അറന്നൂറൊക്കെ ആയിരിക്കും കൂലിയുണ്ടാവാ ചില ഇതിലാണെങ്കില് കുറവ് തന്നെ ആയിരിക്കും മുന്നൂറ് പക്ഷെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന അത്ര വിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന അത്രകൂലി പോലും കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല അതാണ് ഗ്രാമീണ മേഖല അതുകൊണ്ടുതന്നെ കൃഷിയെ കൃഷി ചെയ്യാൻ ഇപ്പോൾ ആർക്കും താല്പര്യമില്ലാതെ ആയികൊണ്ടുതന്നെ ഇരിക്കുകയാണ്